പുരുഷന്മാര് ക്ലാസ്സിക്കൽ നൃത്തം പഠിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാല് അത് നല്ല കാര്യമാണ് പെണ്ണുങ്ങള്ക്ക് മാത്രമല്ല ആണുങ്ങൾക്കും നൃത്തം പഠിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സാറുമാരങ്ങനെ പിന്നെ പഠിച്ച് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും എനിക്ക് ഡാൻസിൻ്റെ ഫീൽഡ് ഭയങ്കരമിഷ്ടമായിരുന്നു അപ്പം ഞാനും ഡാൻസ് പഠിച്ചത് ഒരു മാഷിൻ്റെ കീഴിലാണ് അപ്പം അതുകൊണ്ട് പുരുഷന്മാര് ഡാൻസ് പഠിച്ചു അല്ലെങ്കില് ക്ലാസിക്കൽ നൃത്തം പഠിച്ചതുകൊണ്ട് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും നല്ലതായിട്ട് ശരീരം വഴങ്ങി വരുന്ന ഡാൻസ് കളിക്കുന്ന പുരുഷന്മാരുമുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകള് ചെയ്യുന്നത് പോലെ തന്നെ പുരുഷന്മാരും ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഒരു കുഴപ്പവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എല്ലാ രീതിയിലും സ്ത്രീകളാണല്ലോ കൂടുതലായിട്ട് നൃത്തത്തിലൊക്കെ താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു ചോദ്യമുണ്ടാകുന്നത് എന്നാലും പൊതുവേ പുരുഷന്മാര് ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് പഠിക്കുകയും അത് പിന്നെ അതില് അറിവ് നേടുകയും മറ്റുള്ള കുട്ടികൾക്ക് അത് പകര്ന്നുകൊടുക്കുകയും ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് സ്ത്രീകൾ മാത്രമാണ് ഇപ്പോഴും നൃത്തം പഠിക്കാവൂ അല്ലെങ്കിൽ പുരുഷന്മാര് അത് പഠിക്കേണ്ടതില്ലെന്ന് അവര് വീട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ എങ്കിൽ അതിനായിട്ട് പുരുഷന്മാര് ഇറങ്ങേണ്ട അല്ലെങ്കിൽ സ്ത്രീകള് മാത്രം ഇറങ്ങിയാല് മതിയെന്ന് പറയാൻ കാര്യം അതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്കങ്ങനെയൊരു അഭിപ്രായമില്ല പുരുഷന്മാര് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായി ഡാൻസ് കളിക്കുന്ന ഒരുപാട് കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവർ അവരുടെ ആ കഴിവ് സ്ത്രീകൾക്കുള്ള അതുപോലെ തന്നെയുള്ള കഴിവ് പുരുഷന്മാർക്കുണ്ടെങ്കില് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകള് നല്ലതായിട്ട് നൃത്തം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു തുല്യാവകാശം അതു പുരുഷനും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് കിട്ടിയ അറിവ് മറ്റൊരാൾക്ക് പകർന്നുകൊടുക്കുകയെന്ന് പറയുന്നതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കാണേണ്ട കാര്യമില്ല

പുരുഷന്മാര് ഈ ഡാൻസും കാര്യങ്ങളുമൊക്കെ പുരുഷന്മാര് ചെയ്യുന്നത് കാണുമ്പോള് അതിന് പ്രത്യേകമൊരു ഭംഗിയുണ്ട് എന്നുവെച്ചാല് അവരുടെ സ്ത്രീകൾക്ക് മെയ് വഴങ്ങി വരുന്നതപോലെ തന്നെ പുരുഷന്മാരും അത് ആ രീതിയില് വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണൻ നല്ല രസമാണ് ഞാനൊരുപാട് അങ്ങനത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അങ്ങനെ അതുകൊണ്ട് പുരുഷന്മാര് ക്ലാസ്സിക്കൽ നൃത്തം പഠിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെയെന്നാണ് എൻ്റെ അഭിപ്രായം